എനിക്ക് ഈ നാട് ഇഷ്ടപ്പെടാൻ കാരണം എന്നു വച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജനിച്ചു വളർന്ന നാടാണ് കുഞ്ഞിലേ തൊട്ട് കാണുന്ന ആൾക്കാരാണ് നമുക്കൊരു സ്ഥലത്തോട്ട് പെട്ടെന്ന് മാറുമ്പം നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് ഇവിടെയാകുമ്പം അമ്മ അച്ഛൻ പിന്നെ സഹോദരങ്ങൾ ഉണ്ട് അടുത്ത് അമ്മാവന്മാരുണ്ട് ചെറിയച്ഛന്മാരുണ്ട് അമ്മമ്മയുണ്ട് അച്ഛമ്മയുണ്ട് അച്ഛച്ഛനുണ്ട് എല്ലാവരുമുണ്ട് ഫ്രണ്ട്സുണ്ട് പിന്നെ നല്ല നമ്മുടെ നമ്മുടെ നാട്ടിനൊരു പ്രത്യേക മറ്റു നാട്ടിലെ കാര്യമല്ല നമ്മുടെ ഭക്ഷണ രീതിയിലൊക്കെ പ്രത്യേകതയുണ്ട് നമ്മുടെ നമ്മുടെ ഒരു ചുറ്റുപാടിനും നമ്മളു വളർന്ന ചുറ്റുപാടും ഒക്കെ ആയിട്ട് എനിക്കൊത്തുപോകാൻ പറ്റും വേറെയെവിടെയെങ്കിലും ചെന്ന് എനിക്കങ്ങനെ പറ്റുമോയെന്ന് എനിക്കറിയില്ല അതൊക്കെകൊണ്ട് തന്നെ എനിക്കേറ്റവും ഇഷ്ടം നമ്മുടെ കോഴിക്കോടു തന്നെയാണ് കോഴിക്കോടിലെനിക്ക് നമുക്ക് പോവാത്തതും നമ്മൾ അറിയാത്തതും അങ്ങനെ ആൾക്കാർ ഭയങ്കര കുറവാണ് നമുക്കെവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലും പരിചയക്കാരെങ്കിലുമുണ്ടാവും എവിടെയെങ്കിലും ചെന്നു പെട്ടിട്ടുണ്ടെങ്കിൽ പക്ഷെ വേറൊരിടത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെ പോകണം എങ്ങനെ പോകണമെന്നൊന്നും അറിയില്ല അതുകൊണ്ടെനിക്കേറ്റവും ഇഷ്ടം ഇവിടെത്തന്നെയാണ്